ഒരിക്കൽ ഞാനും എൻ്റെ ഭാര്യയും കൂടി എറണാകുളം വരെ പോയ സാഹചര്യത്തിൽ വളരെ വൈകിയാണ് ഞങ്ങൾ തിരിച്ച് ഭവനത്തിലേക്ക് മടങ്ങി വന്നത് അന്ന് എറണാകുളത്ത് ഞങ്ങൾക്ക് പിറ്റേ ദിവസം ശിവരാത്രി ആയിരുന്നതിനാൽ തന്നെ അവധി ദിവസം ആയതുകൊണ്ട് ട്രെയിനുകളെല്ലാം വളരെ ഫുള്ളായിരുന്നു അതുപോലെ തന്നെ ബസുകളുടെ അവയ്ലബിലിട്ടി കുറവായിരുന്നു അതുകൊണ്ടു ഞങ്ങൾ ഒരുപാട് വൈകി ബസ് പിടിച്ച് ഞങ്ങൾ ഇവിടെ രാത്രിയിൽ ഒരു ഒരു മണി രണ്ട് മണി ആയപ്പോൾ ഞങ്ങൾ എത്തുകയുണ്ടായി വളരെ ഭയന്നാണ് ഒരു മണി രണ്ട് മണി സമയം ഞങ്ങൾ ഇവിടെ വന്നത് എന്നാൽ ഞങ്ങൾ ആ വൈകി എത്തിയ വേളയിലും ഒരു മണിക്ക് തിരുവല്ലായിൽ ഞങ്ങളെ ഞങ്ങളെ കണ്ട ഓട്ടോ ഡ്രൈവറെ ഞങ്ങളെ വളരെ സുരക്ഷിതമായിട്ട് ഭവനത്തിലേക്ക് എത്തിക്കുകയുണ്ടായി വളരെ ഒത്തിരി സന്തോഷം തോന്നി അങ്ങനെ ഓട്ടോ അവിടെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വളരെ വൈകിയും രാത്രിയിൽ അവർ കഷ്ടപ്പെട്ട് ഓടുന്നത് തന്നെ എത്രത്തോളം പ്രയോജനകരമാണെന്ന് ഞാൻ അവിടെ വെച്ച് ചിന്തിച്ചുപോയി ഒരുപാട് കാരണം കൂടെ ഒറ്റക്കായിരുന്നുവെങ്കിൽ അത്രയും പ്രശ്നം ഉണ്ടായില്ല എന്നാൽ കൂടെ ഒരു ഭ പെൺകുട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഒരുപാട് പേടി തോന്നുകയും ഭയം തോന്നുകയും ചെയ്തു എന്നാൽ അവിടെ ഓട്ടോ ഉള്ളത് കൊണ്ട് അവർ വളരെ സുരക്ഷിതമായി ഓട്ടോയിൽ കയറുമ്പോഴും ഒരുപാട് പേടിയുണ്ട് അവർ ചതിക്കോ വഞ്ചിക്കോ വേറെ വല്ല സലത്ത് കൊണ്ട് പോവോ മോഷ്ടിക്കുമോ അങ്ങനെ എന്തേലും പ്രശ്നങ്ങൾ ആവും കാരണം രാത്രി ഒരു മണി രണ്ട് മണി അല്ലെ പക്ഷേ എന്നാൽ വളരെ സുരക്ഷിതമായിട്ട് വളരെ മികവായി ഭവനത്തിലേക്ക് തിരിച്ച് ആ സമയത്ത് വരുവാനായിട്ട് സാധിക്കുകയുണ്ടായി അങ്ങനെയൊരു വലിയൊരു അനുഭവം ജീവിതത്തിൽ ഉണ്ടായി അതുകൊണ്ട് ഒരിക്കലും വൈകി വരുന്നതിനെ പറ്റി അപ്രകാരമൊരു ഭയമില്ല കാരണം നമ്മുടെ നാട് അത്രത്തോളം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നു